ഹലോ ഇത് ചങ്ങനാശ്ശേരിയിലെ നാടൻ റസ്റ്റോറൻറ്റല്ലേ ആ ഓക്കേ ഞാൻ ഇവിടേ കിടങ്ങറ പള്ളിയുടെ ഓപ്പോസിറ്റിൽനിന്നാണ് വിളിക്കുന്നത് ഞാൻ ഫുഡ് ഓഡ്രയ്യാൻ വേണ്ടിയിട്ടായിരുന്നു നിങ്ങളുടെ മെനുവിലിപ്പോള് കറൻറ്റായിട്ട് എന്തൊക്കെയുണ്ടെന്ന് ഒന്നു പറയാമോ ഓക്കെ ഓക്കേ എനിക്ക് പെറോട്ടയും ചിക്കെൻ കറിയും പിന്നെ ഒരു രണ്ട് പ്ലേറ്റ് ബിരിയാണിയും വേണം ചിക്കെൻ ബിരിയാണിയാണെ ഓക്കെ ഓക്കെ പിന്നെ ഈ ചിക്കെന് കറി ഉണ്ടാക്കുമ്പോല് അതില് മല്ലിയില ഇടരുത് കാരണം എനിക്ക് മല്ലിയിലയിട്ടാല് കുറച്ച് പ്രശ്നമുണ്ടാവും മല്ലിയില ഇടാത്ത ചിക്കെൻ കറിയാണോ നിങ്ങൾ വയ്ക്കുന്നത് ഓക്കേ അപ്പോള് എനിക്ക് അത് ഒരു പ്രശ്നമായിട്ടുണ്ട് അതൊന്നു നോക്കി ചെയ്യുവാരുന്നെങ്കില് ഓക്കേ ഓക്കേ അപ്പോള് ബിരിയാണി കഴിക്കാൻ വേണ്ടിയിട്ട് സ്പൂൺ വേണം രണ്ടു പേർക്കുള്ളതാണ് ഞാന് ഓർഡറേയ്തിരിക്കുന്നെ അപ്പോള് രണ്ടുപേർക്കും സ്പൂൺ വേണം പിന്നെ ഡെസേർട്ടായിട്ട് എന്തൊക്കെയുണ്ടെന്ന് പറയാമോ അതുകൂടൊന്ന് ഓർഡ്രയ്യാരുന്നു ഓക്കേ എങ്കില് ചോക്ലേറ്റ് കേക്കും വാനില കേക്കും ഓരോ വൺ പീസുവെച്ചു കൊടുത്തുവിട്ടേക്കണേ അപ്പോള് എത്ര ഏത് സമയത്തേക്ക് കിട്ടുമായിരിക്കും ഇത് ഓക്കേ എനിക്കും ഒരു ഹാഫ് ആൻ അവര് കിട്ടുമായിരുന്നെങ്കില് നല്ലതായിരിക്കും ഹാഫ് ആൻ അവറിലിവിടെ ഓക്കേ അപ്പോള് ഭക്ഷണത്തിനു ചൂടൊട്ടും കുറയാന് പാടില്ല ചൂട് വേണമാവശ്യത്തിനു കേട്ടോ പിന്നെ നല്ല ഭക്ഷണവുമായിരിക്കണം നിങ്ങളുടെ പേയ്മെൻറ്റിൻ്റെ കാര്യങ്ങളൊ ക്കെയും എത്രയാകും ഇതിൻ്റെ രണ്ട് എല്ലാത്തിനുംകൂടെ എത്രയാകും അത് കുറച്ചു കൂടുതൽ അല്ലേ എന്തെങ്കിലും ഡിസ്കൗണ്ട് ഒക്കെ ഉണ്ടായിരുന്നെങ്കില് ഞങ്ങളെപ്പോഴും ഇവിടുന്നു വാങ്ങിക്കുന്നതാണ് ഡിസ്കൗണ്ട് തരുമോ ഓക്കേ ഓക്കേ അപ്പോള് ഫണ്ട് ഞാൻ ഇവിടെ വന്നിട്ടും ഡെലിവറി ബോയുടെ കയ്യിൽ കൊടുത്തുവിട്ടേക്കാം ഓക്കേ ഫൈൻ